ഈ പ്രോഡക്റ്റിപ്പം ഞാനെൻറ്റെയൊരു ഫ്രണ്ടിൻറ്റടുത്തു കണ്ടിട്ടാണ് ഇതിപ്പോൾ മേടിച്ചത് കാരണം അവനതു യൂസ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്കും ബെറ്ററായിട്ട് തോന്നി ഇപ്പോൾ ഇത് ബ്ലൂടൂത്തിൻറ്റെ ഹെഡ്സെറ്റായതുകൊണ്ടുതന്നെ എനിക്ക് ഇപ്പോൾ ഒര് നിശ്ചിത ദൂരത്ത് വെച്ചുകഴിഞ്ഞാലും ഫോണ് ഇപ്പൊൾ ദൂരയാണെങ്കിലും എനിക്ക് ഇത് ഹെഡ്സെറ്റ് വർക്കിങ്ങായിരിക്കും കാരണം യൂസ് ചെയ്യാൻ എളുപ്പമാണ് പിന്നെ എനിക്ക് വയർലെസ്സ് ടൈപ്പായതുകൊണ്ട് ഇപ്പൊൾ എന്താ പറയുക ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ ഇതൊക്കെ യുസ് ചെയ്യാം പിന്നെ ഇതില് ചാർജൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് കൂടുതല് സമയം ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് വർക്കിങ് ടൈമിലും എല്ലാ സമയത്തും ഇത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇത് നല്ലൊരു ബ്രാൻഡിൻറ്റെ ആയതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ളവർക്ക് റഫറും ചെയ്യുന്നുണ്ട് ഇത് എനിക്ക് എന്താ പറയുക അത്രയ്ക്ക് ഒരു ഉപകാരമാണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ളത് പിന്നെ ഇത് ഉപയോഗിക്കുന്ന കൊണ്ട് എനിക്ക് ചെവിക്കു വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇതുവരെ നല്ല സോഫ്റ്റാണ് ഈ സാധനം അപ്പം അതുകൊണ്ടെനിക്ക് ചെവിക്ക് വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഇതുവരെ വന്നിട്ടില്ല പിന്നെ എനിക്ക് എന്താ പറയുക ബ്ലൂടൂത്തു തന്നെ ആയതുകൊണ്ട് എനിക്ക് ഫോണില് കണക്ട് ചെയ്യാനും അതിപ്പോൾ വേറൊരാക്ക് വേണമെങ്കിൽ ഇതാക്കാനൊക്കെ എല്ലാ ഫോണുകളിലും ഓൾമോസ്റ്റ് എല്ലാ ഫോണിലും ഇത് കണക്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് ഐഫോണെന്നോ ഇന്ന ആൻഡ്രോയിഡിന്നോ വ്യത്യാസൊന്നും ഇതിനകത്ത് വരുന്നില്ല എല്ലാത്തിലും എനിക്ക് കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ട് അതുകൊണ്ട് ഓൾമോസ്റ്റ് നല്ല ഒരു പ്രോഡക്റ്റായിട്ടാണ് ഞാനിത് കാണുന്നത്